ഹലോ ഇത് മഞ്ചേരി അല് ബേക്ക് അല്ലേ ഞങ്ങള് ഒരു പതിനഞ്ചാള്ക്കാര് അങ്ങോട്ട് വരും അപ്പോ കാര് നിര്ത്തിയിടാന് സ്ഥലമുണ്ടോ ഞങ്ങളൊരു എട്ടുമണി ഒന്പതരേന്റെ ഇടയില് വരും അപ്പോള് അവിടത്തെ നല്ല ഭക്ഷണങ്ങള് ഏതൊക്കെയാണ് ആ മന്തിയുണ്ടോ എന്നാല് എത്രയായിരിക്കും മന്തിക്ക് ഓ നാനൂറ് ഉറുപ്പിക അതൊന്നും പറ്റില്ല ഒരു അയില അയലക്കെത്രയാവും ആ എന്നാ ഒരു പതിനൊന്ന് അയില പിന്നെ ദം ബിരിയാണിക്കോ ആ ഒരു ദം ബിരിയാണിയും പിന്നെ ഒരു പതിനൊന്ന് ദോശയും ഞങ്ങള് രാത്രി ഒരു എട്ടര അല്ലെങ്കില് ഒന്പതരേന്റെ ഇടയില് വരും അപ്പോള് എല്ലാം റെഡിയാക്കി വയ്ക്കണം ആ പിന്നെ ഒരു ചട്ടി ചോറും കൂടി വേണം അതൊരു നാലെണ്ണം പിന്നെ അവിടെ കുടിക്കാന് എന്തൊക്കെയുണ്ട് ആ ഒരു സെവനപ്പും പിന്നെ ഒരു പെപ്സിയും മാണം ഞങ്ങള് എട്ടുമണിക്ക് വരും ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വയ്ക്കണം എന്നാല് ഓക്കേ